ഇപ്പോൾ വയനാട് ജില്ലയിൽ നല്ല രീതിയിലുള്ള പരിപാടികൾ വിനോദ സഞ്ചാരത്തിനും നല്ല രീതിയിലുള്ള നമുക്കുല്ലസിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ എല്ലാവരും കാണാൻ പോകുന്ന ഒന്നേയുള്ളൂ തീയേറ്റർ തീയേറ്ററിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പടങ്ങൾ കാണാൻ നമുക്ക് മനസ്സിന് സന്തോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് തീയേറ്ററുകളിൽ പോകും പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ നമ്മളെ ഫ്രണ്ട്സോ നമ്മളെ ഭാര്യ കുട്ടികൾ ഇവരെയൊക്കെ കൂട്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് നല്ല എൻജോയ്മെൻറ്റ് ആണ് അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ നീന്തൽ അതായത് നമ്മളിവിടെ ഇവിടെ പുഴയാണ് മെയിൻ ആയിട്ട് ഉള്ളത് അപ്പം പുഴകളിലൊക്കെ പോയി പുഴകളിലും കുളങ്ങളിലൊക്കെ പോയിട്ട് നീന്തൽ പഠിക്കുക നീന്ത് നീന്തുമ്പോൾ നല്ലൊരു സന്തോഷം കാര്യങ്ങളും ഉണ്ടാവും പിന്നെ നമുക്കിവിടെ റിസോർട്ടുകളുണ്ട് റിസോർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മനസ്സിൽ നല്ല സന്തോഷം വരുന്ന രീതിയിലുള്ള റിസോർട്ടുകളുണ്ട് പിന്നെ ഒരു ട്രീ ഹൗസ് അതായതിപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഹട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്രീ ഹൗസ് അപ്പോൾ അങ്ങനത്തേതിലൊക്കെ പോയിക്കഴിഞ്ഞാൽ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓരോ സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടാവും അതിനൊക്കെ പോയി പങ്കെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും